ഞങ്ങള നാട്ടിൽ പലചരക്ക് കട എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടുത്തെ പലചരക്ക് കടയിൽ കിട്ടുന്നത് കാരണം ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ വലിയ വലിയ പലചരക്ക് കടയിലൊക്കെ ആയിരിക്കും കിട്ടുക ഇവിടെ കൂടുതലായിട്ടും അരി അരിക്ക് ഞങ്ങൾ വിലപേശാറില്ല കാരണം പുറമേനിന്ന് വരുന്നതായതുകൊണ്ട് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അതായത് ഇപ്പോൾ ഒരു ഒരു ചാക്കിന് കൂടുത ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രൂപേൻ്റെ അടുത്തൊക്കെ ഇവിടെ റേറ്റ് വരുന്നുണ്ട് കാരണം പറഞ്ഞാൽ ഇവിടുത്തെ ജി എസ് ടിയും ഇവിടുത്തെ സെസ്സ് അതെല്ലാം കൂടുതലാണ് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ് എല്ലാം നമുക്കിവിടെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങളും പച്ചക്കറി മുതൽ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഏ റ്റു ഇസഡ് സാധനവും പുറത്തു നിന്നാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് എല്ലാ കടകളിലേക്കും അപ്പം എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിലയും കാര്യങ്ങളും ഒക്കെയുണ്ട് നമ്മൾ പരമാവധി നോക്കും വിലപേശാൻ വേണ്ടിയിട്ട് പക്ഷേ മലയാളികൾ പൊതുവേ ബുദ്ധിശാലികളും തന്ത്രശാലികളും ആയതുകൊണ്ട് ഈ മറ്റ് ഇപ്പം കർണാടകയിലൊക്കെ ഉള്ളവരുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വിലപേശി അവർ പറയുന്നതിൽ കുറച്ച് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മേടിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ച് വിളിക്കും തിരിച്ച് വിളിച്ചിട്ട് ആ നമ്മൾ പറഞ്ഞ പൈസയ്ക്ക് സാധനം തരാറുണ്ട് പക്ഷേ ഇവിടുത്തെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അങ്ങനെ തരാറില്ല അപ്പം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആ ഒരു റേറ്റിൽ തന്നെ നമ്മൾ എടുക്കാറുള്ളൂ